ഇപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്മാരെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് നടന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും മോഹൻലാല് മമ്മൂട്ടി അങ്ങനെ ഉള്ള ആൾക്കാര് പിന്നെ ടോവിനോ ഉണ്ട് ഉണ്ണി മുകുന്ദൻ ഇങ്ങനെ ആൾക്കാരെ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവരുടെ സിനിമ കാണാനാക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കായിക ഇനമെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കായിക ഇനങ്ങളുണ്ട് നമുക്കിപ്പോൾ ക്രിക്കറ്റ് ഉണ്ട് ഫുട്ബോൾ ഉണ്ട് ഇതിലൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്ന് ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പോൾ ക്രി ഫുട്ബോളിലൊക്കെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് പല രീതിയിലുള്ള ആൾക്കാര് ഉണ്ട് ഇപ്പോൾ റൊണാൾഡോ ഉണ്ട് നെയ്മർ ഉണ്ട് മെസ്സി ഉ ണ്ട് അങ്ങനെ പല ആൾക്കാരുണ്ട് ഇപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്മർ ആണ് നെയ്മറിൻ്റ പല കളികളും ഇപ്പോൾ ഈ അടുത്ത് പല രീതിയിലുള്ള കളികളും കാര്യങ്ങളുമൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കൂടുതലായിട്ടും കാണാൻ ആഗ്രഹിച്ചെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് വേൾഡ് കപ്പ് ആണ് അപ്പോൾ വേൾഡ് കപ്പ് നടന്നത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഇവിടെ നമ്മുടെ ഖത്തറിലാണ് നടന്നത് അപ്പോൾ നമുക്ക് പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കാണേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാനിവിടെ കളിക്കാറുമുണ്ട് അപ്പോൾ എനിക്ക് കൂടുതലായിട്ടും കളി കാണാനാണ് ഇഷ്ടം കാരണം എന്നുവെച്ചു കഴിഞ്ഞാല് നമ്മള് തൊണ്ണൂറ് മിനിറ്റ് ആകാംഷയോടെ കാണുന്നുവെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു വലിയൊരു കാര്യമാണ്